നിങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ ഹോം സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു മൂന്നുവർഷ ബിരുദാനന്ത കോഴ്സാണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭക്ഷണം ഭക്ഷണം എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ആരോഗ്യം എങ്ങനെയൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി കൊണ്ട് അസുഖങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് സൊ എനിക്ക് ആഗ്രഹം ഒരു ഡൈറ്റിഷൻ ആകാനാണ് അതായത് നമ്മൾ നിത്യേന നിത്യം കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ മാത്രം രോഗങ്ങളെ പ്രധിരോധിക്കുക വന്ന രോഗങ്ങളെ ഭേദപ്പെടുത്തുക മരുന്നില്ല ഇപ്പം മുൻപ് ഒരുപാട് വർഷങ്ങൾക്കു മുൻപു തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവിയിലെ ഡോക്ടർ ഭക്ഷണം കൊണ്ടായിരിക്കും മരുന്നുകൊണ്ടായിരിക്കില്ല ചികിത്സിക്കുക എന്നുള്ളത് അങ്ങനെ അത്തരത്തിൽ ഭാവിയിൽ ഒരു ഡോക്ടറാകാനും നമ്മളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവരുടെ പ്രശനങ്ങൾ അറിഞ്ഞ് അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണത്തിലൂടെ മാറ്റങ്ങൾ നൽകാനും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അയ്യോ ഇത് കഴിക്കാൻ പാടില്ലല്ലോ എന്നൊരു ചിന്ത വരരുതാതെ മൈൻഫുൾ ഈറ്റിംഗ് നമ്മൾ അറിഞ്ഞു കൊണ്ടു കഴിക്കുക എന്നുള്ള ആ ഒരു ബോധത്തിൽ ഭക്ഷണം കഴിക്കാനും അങ്ങനെകഴിക്കുന്ന ഭക്ഷണത്തിൽ സന്തോഷവും സമാധാനവും അതുപോലെ ആരോഗ്യവും നേടാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞുകൊടുക്കുക അത്തരത്തിൽ ഒരു ഡോക്ടറാകാൻ ഒരു ഡൈറ്റിഷൻ ആകാനാണ് ഞാൻ പഠിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ബിരുദാനന്ത കോഴ്സാണ് ഇത് കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദം കോഴ്സും ചെയ്യണമെന്നാണ് ആഗ്രഹം അതുകഴിഞ്ഞ് ഏതെങ്കിലും ഒരു നല്ല ഒരു ആശുപത്രിയിൽ ജോലിചെയ്ത് ഒരുപാട് പേരേ സഹായിക്കണം ഒരുപാട് പേർ ബുദ്ധിമുട്ടി എത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം നമുക്ക് ഒരുപാട് പേരേ സഹായിക്കാൻ പറ്റും അത്തരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ എൻറെ ഭാവിയിൽ ചെയ്യാനായി ആഗ്രഹിക്കുന്നത്